ചേട്ടാ കെയ്ക്കിനൊക്കെ എന്താ വില നോർമൽ കെയ്ക്കായിട്ടുണ്ടോ മറ്റേ വാനില ബട്ടർസ്ക്കോച്ച് പിസ്ത അങ്ങനെയുണ്ടോ അപ്പോൾ അതിൽ സ്പഞ്ചായിട്ടെന്താ വരിക അതിൻറെ ഉള്ളിലുള്ളത് എന്തായിട്ടാണ് വരിക നമ്മളിപ്പോൾ ഒരു ബർത്ത് ഡേ പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയെ കുട്ടിയുടെ ഒരു രണ്ടാമത്തേത് രണ്ട് വയസ്സാണ് അപ്പോൾ അതിൻ്റേതായൊരു ഭംഗിയിലും കുട്ടിയിനെയൊന്ന് ആശ്ച്ചര്യപെടുത്താൻ ഇമ്പ്രെഷനൊക്കെ ഒരു രീതിയിൽ വേണം നമ്മൾക്ക് ചെയ്യാൻ ആഹ് അപ്പോൾ നമ്മൾക്ക് പോയി കുട്ടിയിനെ ഇതാക്കേണ്ട സ്ഥിതിക്ക് നമ്മൾക്കൊരു പച്ച കളറൊക്കെ പോലെ ഒരു പച്ചയോ മഞ്ഞയോ അങ്ങനെ ഒരു പുറത്ത് കളറ് വേണം എഹ് പുറത്തുള്ള ക്രീം അപ്പോൾ നമ്മൾക്ക് പിന്നെ ഉള്ളിൽ പിന്നെ ഫ്ലേവറായിട്ട് വാൻചോ ചെയ്തുതരുമോ നിങ്ങൾ അപ്പോൾ അതെങ്ങനെയാണ് വില എങ്ങനെ ആയിരിക്കും നമ്മൾക്കൊരു ഒരു പത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ചു പേരെ നമ്മൾ വിളിച്ചിരിക്കുന്നത് സോ ഒരു രണ്ട് രണ്ടരക്കിലോ വേണ്ടി വരില്ലേ ഒരു ഇരുപത് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര വേണ്ടി വരും അല്ലേ അപ്പോൾ എത്ര വരും വില എങ്ങനെയാണ് ആ എണ്ണൂറ് എണ്ണൂറ്റമ്പത് റേഞ്ചിൽ വരും അല്ലേ അപ്പോൾ അതിൽ നിങ്ങൾ വേറെയെന്തെലും എക്സ്ട്രാ ആ ഈ ലെയേറിൻ്റെ ഇടയിൽ വല്ലതും ഇടാൻ പറ്റുമോ വല്ല കാരമലോ അല്ലെങ്കിൽ അതു നമ്മൾ പറയണതുപോലെ നിങ്ങൾ ഉണ്ടാക്കി തരുമോ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾക്കിത് ഒരു രണ്ട് ഈ രണ്ട് നിലപോലെ മീൻസ് ആദ്യം മുകളിൽ ഒരു കുറച്ചൊരു വലിയ വട്ടം അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് ചെറിയ വട്ടം പോലെ ആ അങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റുമോ ഒരു മൂന്നൊക്കെ ആക്കിക്കോളൂ കുഴപ്പമില്ല

അപ്പോൾ നമ്മൾക്ക് താഴെ വന്നിട്ട് മൂന്ന് ലെയറ് ആ മൂന്ന് ലെയറിൽ റൗണ്ടുതന്നെ വേണം ആ അതിൽ നമ്മൾക്ക് അതിൽതന്നെ ആ ആ അതുതന്നെ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ വിപ്പിൻ ക്രീമിൻ്റെ ഇടയിൽ നമ്മൾക്ക് കുറച്ച് കാരമലൊക്കെ അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ കടിക്കാൻ സുഖം ഉണ്ടാവില്ലേ അപ്പോൾ അത് വേണം അതേപോലെ താഴെ വന്നിട്ട് സ്ട്രോബെറിയിൻ്റെ ബ്ലാക്ക് ഫോറെസ്റ്റ് ഇട്ടുകൊള്ളൂ പിന്നെ മുകളിലത്തെ സെക്ഷനിൽ ഒരു മഞ്ഞ കളർ കൊടുത്തിട്ട് അതിൽ ബ്ലാക്കുതന്നെ ഇട്ടുകൊള്ളൂ കുഴപ്പമില്ല ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ഇട്ടുകൊള്ളൂ ആ അങ്ങനെ മറ്റേ ഹാപ്പി ബർത്ത് ഡേ മറ്റേ കുത്തിവയ്ക്കുന്ന കോലൊക്കെ ഇല്ലേ ആ ആ പിന്നെ വല്ല മിക്കി മൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സാധനം നിങ്ങളുട ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊള്ളൂ അപ്പോഴത് വില എങ്ങനെയത് ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ വില എത്ര വരും ഒരു ഒരു കറക്ട് എത്ര വരും എന്ന് പറയാൻ പറ്റുമോ ആയിരത്തി ഒരുന്നൂറ് അല്ലേ അപ്പോൾ ഇപ്പോൾ അഡ്വാൻസായിട്ട് എന്തെങ്കിലും തരണോ അഞ്ഞൂറ് അപ്പോൾ നമ്മൾക്ക് ഇത് മറ്റന്നാളേക്ക് ആ ഓക്കെ അപ്പോൾ നമ്മൾക്ക് മറ്റന്നാളേക്ക് വേണം ആ മറ്റന്നാൾ നമ്മളിപ്പോൾ ഒരു പത്ത് മണിക്കാണ് ഉദ്ദേശിച്ചിരിക്കണത് അപ്പോൾ ഒരു ഒമ്പര ആകുമ്പോഴേക്കും നിങ്ങൾ കൊണ്ടുത്തന്നാൽ എത്തിച്ചാൽ ആ ഓക്കെ അപ്പോൾ ലൊക്കേഷൻ ഇപ്പോൾത്തന്നെ അയക്കണോ അതോ ആ ഓക്കേ ആ ഈ കാർഡിലുള്ള നമ്പറല്ലേ ഈ കാർഡിലുള്ള നമ്പറല്ലേ ആ അപ്പോൾ ഞാൻ അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം ലൊക്കേഷൻ ആ ഓക്കെ ഫൈൻ താങ്ക് യു